ആ അതെല്ലോ ആരാണ് ആ ഓക്കെ എന്തേനു വിളിച്ചത് ആ ബി കോമിലെ കുട്ടിയാണോ ആ ആ ഓക്കെ ഓക്കേ ഓക്കെ ഓക്കെ ഓക്കെ ആ ഞാൻ ആ ആ നമ്മൾ ഓർമ്മയിലുണ്ട് നമ്മൾ അന്നുതന്നെ ഒരു ഇലക്ട്രീഷനെ ബന്ധപ്പെട്ടിരുന്നു ഇവിടെ മനക്കടുത്തുള്ള ഒരു ഇലക്ട്രീഷനെ ബന്ധപ്പെട്ടിരുന്നു അയാൾ ഉച്ചക്കുശേഷം വരാമെന്നുപറഞ്ഞതായിരുന്നു പിന്നെ അയാളെന്തോ വിഷയമായിട്ട് അയാളങ്ങനെ ലീവോ ലീവാണെന്നോ അങ്ങനെയെന്തോ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ സ്പോർട്സും കാര്യങ്ങളൊക്കെയായിട്ടേ കുറച്ചുതിരക്കിലായിരുന്നല്ലോ അപ്പോൾ അതിന്റിടക്കുനിന്ന് ഇലക്ട്രീഷനെ ബന്ധപ്പെടാനും കഴിഞ്ഞിട്ടില്ല വേറെ പിന്നെ ഒന്ന് നോക്കാൻവേണ്ടി പറഞ്ഞിരുന്നു അയാൾ പിന്നെ ആളെ കിട്ടിയിട്ടൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടിങ്ങനെ കുറച്ച് ഇല്ല വളരെ പെട്ടെന്ന് നമ്മളത് ചെയ്യാം നമ്മൾ നമ്മൾ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് വിഷയങ്ങളിങ്ങനെ പെൻഡിങ്ങിലുണ്ട് ഓരോരുത്തരിങ്ങനെ വിളിക്കുന്നുണ്ട് ഓരോരോ ഡിപ്പാർട്മെൻ്റിൽ നിന്നൊക്കെ പക്ഷേ നിങ്ങളുടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് കുറച്ചുതിരക്കാണെന്നാണ് പറഞ്ഞത് ഇല്ലില്ല ഇനിയിപ്പോൾ ഏകദേശം കഴിഞ്ഞു സ്പോർട്സൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് അതിന്റെ അസ്സെസ്സ്മെൻറ് കാര്യങ്ങളൊക്കെയേ നടക്കാനുള്ളൂ അതുകഴിഞ്ഞാൽ വളരെ പെട്ടെന്നുതന്നെ ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ അതെ അല്ലേ അതന്ന് അന്ന് ആ ക്ലാസ്സ് അവിടെനിന്ന് മാറ്റിയാലോ എന്ന് ഒന്നു രണ്ടു ടീച്ചേർസ് വന്നു സൂചിപ്പിച്ചിരുന്നു പക്ഷേ വേറെ റൂമൊന്നും സൗകര്യപ്പെടാത്തതുകൊണ്ടേ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ഈ ഓഫീസ് ബിൽഡിങ്ങിൻ്റെ അവിടുത്തേക്ക് മാറ്റിയാലും അവിടെയും നല്ല ചൂടാണ് അവിടെ പിന്നെ കറണ്ട് അവിടെ അപ്പോൾ സി എം ഇല്ല അങ്ങനെ അവിടുത്തെ ഇലെക്ട്രിസിറ്റി വർക്കൊക്കെ ചെയ്യാനൊത്തിരിയാണ് അപ്പോൾ അതുകൊണ്ടേ ഏതായാലും വിഷമിക്കാനൊന്നുമില്ല വളരെ പെട്ടെന്നുതന്നെ നമ്മൾ പരിഹാരം കാണാം ഏതായാലും ഇപ്പോൾ വിളിച്ചുണർത്തിയതുകൊണ്ട് ആദ്യം അതുതന്നെ കമ്പ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിക്കാം ഓക്കെ ഓക്കെ ഓക്കെ